എന്തൊക്കെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട മീനെന്ന് ചോദിച്ചാൽ മത്തി എല്ലാ ജനം എല്ലാ ജനങ്ങൾക്കും ഇഷ്ടപ്പെടുന്ന മീനാണ് മത്തി ചിലയിടത്ത് മത്തി എന്ന് പറയും ചിലയിടത്ത് ചാള എന്ന് പറയും അത് മാങ്ങയിട്ട് വെയ്ക്കുന്നത് നല്ലതാണ് മുളകിൽ വെയ്ക്കുന്നത് നല്ലതാണ് അതുപോലെ അയില അയില എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകില്ല എന്ന് പറഞ്ഞാൽ അത് ചിലപ്പം കാൽ പൊട്ടുകയോ അങ്ങനെ പൊട്ടുക ഒക്കെ ചെയ്യുന്നവർക്ക് അത് കൂട്ടിക്കഴിഞ്ഞാൽ പഴുക്കും ചിലർക്ക് ഗ്യാസിൻ്റെ അസുഖം വരും അതുകൊണ്ട് ചിലർ കൂട്ടുകയില്ല അയില എന്നാലും അയില മാങ്ങിയിട്ട് കൂട്ടാൻ വെച്ചാൽ നല്ലതാണ് മുളക് വെച്ചാലും നല്ലതാണ് പിന്നെ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്നവർക്കൊക്കെ വരാൽ ചുറക് അതൊക്കെ വെച്ച് കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ വലിയ മാംസമുള്ള മീനുകളൊക്കെ ആണെന്ന് പറയാൻ ആയിട്ട് നെയ്മീൻ ചൂരാ കൂരി അങ്ങനെയുള്ള മീനുകളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല മാംസമുള്ളതാണ് അത് ആണുങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന മീനുകളാണ് പിന്നെ കായലിലെ മീനെന്നു പറഞ്ഞു കഴിഞ്ഞാൽ പള്ളത്തി പിന്നെ കരിമീൻ അങ്ങനെയുള്ള മീനുകളും നല്ലതാണ് വറക്കുന്നതും പൊള്ളിക്കുന്നതും ഒക്കെ നല്ലതാണ് അത് അത് ഗുണവും ആണ് ഈ കായലിലെ മീനുകൾ എന്ന് പറയുന്നത് ഗുണമുള്ളതാണ് അങ്ങനെ പിന്നെ ചെമ്മീൻ ചെമ്മീൻ എന്നു പറഞ്ഞാൽ നമുക്ക് റോസ്റ്റ് ചെയ്യാം മുരിങ്ങക്കയും തക്കാളിയും മാങ്ങയും ഒക്കെ ഇട്ട് കൂട്ടാൻ വെയ്ക്കാനും നല്ലതാണ് അങ്ങനെ കൂട്ടുന്നതും ചെമ്മീൻ ഒക്കെ നല്ലതാണ് പിന്നെ നെത്തോലി എന്ന് പറയുന്ന കിളിമീൻ പിന്നെ കിളിമീൻ അല്ല അതിൻ്റെ പേര് കൂന്തൽ കൂന്തൽ നല്ലതാണ് അത് തോരൻ വെച്ച് കഴിക്കുന്നതും അല്ലാതെ റോസ്റ്റ് ചെയ്ത് കഴിക്കുന്നതും ഒക്കെ നല്ലതാണ്